ആശുപത്രി നടത്തിപ്പ് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും മതിയായ ചികിത്സ ലഭിക്കണം അതൊക്കെ അന്വേഷിക്കണം അതുപോലെ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താതെ വരാതെ നോക്കണം അപ്പോൾ അവർക്ക് വേണ്ട മരുന്നുകളെല്ലാം എത്തിച്ചു കൊടുക്കാൻ ഒരു ഹോസ്പിറ്റലിന് ബാധ്യസ്ഥ ബാധ്യസ്ഥത ഉണ്ട് അതിലെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും ഒരു പിഴവും സംഭവിക്കാൻ പാടില്ല അതിനു കേപ്പബിളായിട്ടുള്ള ഡോക്ടർമാരെയൊക്കെ നിർത്തണം അവർക്ക് വേണ്ട മതിയായ സാലറി ഒക്കെ കൊടുക്കണം അതുപോലെ നമുക്ക് ഏത് സമയത്തും ഡോക്ടർമാരുടെ സേവനം ആവശ്യമാണ് ഇരുപത്തിനാലു മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ആവശ്യമാണ് അതുപോലെ നഴ്സുമാരും കമ്പോണ്ടർമാരും എല്ലാം വേണം ഇപ്പോൾ ഏതു നേരത്തും നമുക്ക് പേഷ്യൻസ് വരാം ഇപ്പോൾ രാത്രിയിലൊക്കെയാണ് പേഷ്യൻസ് പേഷ്യൻസ് വരുന്നത് പറഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ ആവശ്യമായ സ്റ്റാഫുകള് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റായി മറ്റും പറ്റി വരുന്നവരാണെങ്കിൽ അവർക്ക് നമ്മള് പെട്ടന്ന് വന്ന് എടുത്ത് കൊണ്ടുപോവാനും അല്ലെങ്കിൽ അതുപോലെ വീൽ ചെയറൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അവിടേയ്ക്ക് വേണ്ട എക്യുപ്മെൻ്റ്സൊക്കെ നമ്മളെപ്പോഴും കരുതിയിരിക്കണം ഹോസ്പിറ്റലിലോട്ട് അതുപോലെ ഇപ്പോൾ ഇൻ കേസ് വല്ല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുകയാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോവാൻ അതിന് വേണ്ടി ആംബുലൻസും കാര്യങ്ങളൊക്കെ റെഡിയായിരിക്കണം അതുപോലെ എല്ലാ സമയത്തും നല്ലൊരു പോയി എപ്പോഴും നല്ല ബോധവാന്മാരായിട്ടു തന്നെ ഇരിക്കണം രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും നമ്മളുടെ പേഷ്യൻസിൻ്റെ കാര്യം എപ്പോഴും നോക്കണം അപ്പോൾ വാർഡിലൊക്കെ കിടക്കുന്ന പേഷ്യൻസാണെങ്കിൽ അവരെയൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടെന്നെയിരിക്കണം നമുക്ക് രാത്രിയിൽ അങ്ങനെയൊന്നും ഉറങ്ങാനൊന്നും പറ്റില്ല അവർക്ക് ഇപ്പോൾ ഓരോ സമയങ്ങളിലും മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടി വരും രാത്രിയില് ഡ്രിപ്പൊക്കെ ഇടുന്ന സമയത്ത് അത് തീരുമ്പോൾ അടുത്ത ഡ്രിപ്പിട്ടു കൊടുക്കണം അപ്പോൾ അതൊക്കെ നേഴ്സുമാരുടെ ഡ്യൂട്ടിയാണ് അത് ഡോക്ടർമാർ ഇടക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതില് സമയം ഉറക്കമൊക്കെ പോകും അതൊക്കെ നമ്മള് ശ്രദ്ധിക്കണം അതുപോലെ നമ്മളെ സ്വീകരിക്കാനുള്ള ആളുകള് ജീവനക്കാരൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കണം